മലയാള ഭാഷ മലയാള ഭാഷയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മാതൃഭാഷ തന്നെയാണ് മലയാള ഭാഷ മറ്റ് ഭാഷകളുടെ വികാസത്തെ എങ്ങനെല്ലാം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഓരോ ഭാഷകളും തനിയെ ഉണ്ടായി വന്നതല്ല എല്ലാ ഭാഷകളും വേറൊരു ഭാഷയിൽ നിന്ന് ഉണ്ടായി വന്നതോ അതായത് ബാക്കി എല്ലാ ഭാഷകളും തമിഴിൽ നിന്നുണ്ടായി എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ഒരു സങ്കല്പം തമിഴാണ് ബാക്കി ഇപ്പോൾ ഇന്ത്യയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഭാഷകൾക്കും ഉത്ഭവം ഉണ്ടായത് തമിഴിൽ നിന്നാണെന്ന് ആണ് നമ്മുടെ വിശ്വാസം മലയാള ഭാഷ ബാക്കി ഉള്ള ഭാഷകളെയൊക്കെ വല്ലാതെ ഒതുക്കിയിട്ടുണ്ട് ചെലചെല പല പല ഓരോരോ വാക്ക്യങ്ങളും നമ്മുടെ മലയാള ഭാഷയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് അതുപോലെ സംസ്കൃതം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മലയാള ഭാഷയെ വല്ലാതെ അടുത്ത് കിടക്കുന്നൊരു ഭാഷയാണ് സംസ്കൃതം തെലുങ്ക് അങ്ങനത്തെ ഭാഷകളൊക്കെ മറ്റു ഭാഷകളുടെ വികാസത്തെ മലയാള ഭാഷ ഉള്ളതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഷയാണെന്നാണ് എല്ലവരും പറയുക പഠിച്ചെടുക്കാനും നമുക്കങ്ങോട്ട് പറയാനും ഒക്കെ ബുദ്ധിമുട്ടുള്ളൊരു ഭാഷയാണ് മലയാള ഭാഷ എഴുതാൻ പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ഭാഷ കൂടിയാണ് മലയാളം ഭാഷ ഇന്ത്യയിലുള്ള ഭാഷകളിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഷകളിൽ ഒന്നാണ് മലയാളം കാരണം മലയാളത്തിൽ പലതരം വേർഡ്സും എല്ലാവർക്കും വഴങ്ങിക്കോളണം എന്നില്ല എല്ലാം കുറച്ചു ബുദ്ധിമുട്ടുള്ള വേർഡ്സ് ആണ് ലിപികളാണ് വാക്ക്യങ്ങളാണ് അങ്ങനെ എല്ലാം കൊണ്ടും മലയാളം കുറച്ച് പരന്നു കിടക്കുന്നതും ആണ് ബുദ്ധിമുട്ടേറിയതും ഒരു ഭാഷ തന്നെ ആണ് മലയാളം എന്നാൽ ഇവിടെ ജനിച്ച മലയാളികൾക്കെല്ലാം ചെറുപ്പം മുതലേ അത് പറഞ്ഞു വരുന്നതും എഴുതികൊണ്ടും ഉള്ളതു കാരണം എല്ലാവർക്കും അത് ശീലമാണ്

സംസ്കൃതത്തിൽ നിന്നാണ് മലയാളം ഉണ്ടായത് സംസ്കൃതം ആണ് മലയാളത്തിൻ്റെ അമ്മയായി വരിക തമിഴ് ഭാഷയിൽ നിന്നാണ് സംസ്കൃതം അങ്ങനത്തെ ഓരോ ഭാഷകളും ഉണ്ടായത് അപ്പോൾ മലയാളം ഭാഷ ബാക്കി ഉള്ള ഭാഷകളെ ഒക്കെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് മലയാള ഭാഷ കാരണമാണ് ബാക്കി ഉള്ള ഭാഷകളും എല്ലാം ഒത്തുചേർന്നാണ് നിൽക്കുന്നത് ഇപ്പോൾ തന്നെ മലയാള ഭാഷ സംസാരിക്കുന്ന സംസ്ഥാനം കേരളമാണ് കേരളത്തിൽ എല്ലാവരും മലയാളമാണ് സംസാരിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ പല ബംഗാളിൽ നിന്ന് വന്ന അഥിതി തൊഴിലാളി തൊഴിലാളികളും അങ്ങനെ ഹിന്ദിക്കാർ തമിഴ് നാട്ടിൽ നിന്ന് വന്ന തൊഴിലാളികൾ അങ്ങനെ എല്ലാവരും ചേർന്ന് ഇപ്പൊ മലയാളം ഹിന്ദി തമിഴ് ഇംഗ്ലീഷ് അങ്ങനെ പലതരം ഭാഷകൾ ചേർന്നതുതന്നെ ആണ് കേരളം മലയാളഭാഷ നമ്മുടെ ഇന്ത്യയിലെ ബാക്കി ഉള്ള ഭാഷകളെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് അതായത് അടുത്ത് കിടക്കുന്ന മലയാളം തമിൾ അങ്ങനത്തെ ഭാഷകളെയൊക്കെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് മലയാള ഭാഷയ്ക്ക് ഒരുപാട് അക്ഷരമാലകൾ ഉണ്ട് ചില്ലക്ഷരങ്ങൾ ഉണ്ട് വ്യഞ്ജനാക്ഷരങ്ങൾ ഉണ്ട് അങ്ങനങ്ങനെ ഒരുപാട് അതിൻ്റെ സവിശേഷതകൾ നീണ്ട് നീണ്ട് പോവും ഒരുപാടുണ്ട് മലയാള ഭാഷ നമ്മുടെ ഈ പ്രദേശത്തെ ഭാഷകളെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് കാരണം തലമുറകൾ ആയി നമ്മൾ സംസാരിച്ച് സംസാരിച്ച് മലയാളഭാഷ പിൻതുടർന്ന് പോവുകയാണ് മലയാളഭാഷ ആയിട്ടുള്ള സംസ്ഥാനം കേരളമാണെന്ന് നമുക്കറിയാം കേരളത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ ഏത് കൊച്ചു കുട്ടിയാണെങ്കിൽ കൂടിയും മലയാളം നല്ല വശത്തിലാക്കി സംസാരിക്കും അതാണ് പിന്നെ മലയാളികൾ എപ്പോഴും സ്നേഹമുള്ളവരായിരിക്കും അവരുടെ മലയാളഭാഷ തന്നെ സംസ്ക്കാരമുള്ളതും അതുപോലെത്തന്നെ സ്നേഹമുള്ളതും ഒക്കെപ്പാടെ ചേർന്നൊരു ഭാഷയാണ് മലയാളഭാഷ മലയാളികളുടെ കരുതലും എല്ലാം അവരുടെ ഭാഷയിൽ തന്നെയുണ്ട് മലയാളഭാഷ ബാക്കിയുള്ള ഭാഷകളെ എങ്ങനെ ഒരു വികാസത്തിന് സഹായിക്കുന്നു എന്ന് ചോദിച്ചാൽ മലയാളഭാഷ ഇന്ന് പലപല വേർഡ്സും യൂസ് ചെയ്താണ് ബാക്കിയുള്ള ഭാഷകൾ എടുത്തിരിക്കുന്നത് മലയാളത്തിലെ പലപല വാചകങ്ങളും മറ്റ് ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട് മലയാളത്തിനെ അടിസ്ഥാനമാക്കിയിട്ടും കുറേ വാചകങ്ങൾ ബാക്കിയുള്ള ഭാഷകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് മലയാളം ഏറ്റവും പഴക്കമേറിയ ഭാഷകളിൽ ഒന്നാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ഭാഷകളിൽ ഒന്ന് ഒരു മൂന്ന് ഭാഷകളിൽ ഒന്നാണ് മലയാളം ഇന്ത്യയിലെ ഒരു കൊച്ചു സംസ്ഥാനമാണ് കേരളമെങ്കിലും ഇത്രയും ഭാഷകൊണ്ട് സമ്പൂർണ്ണവും കരുത്തുമുള്ള ഒരു സംസ്ഥാനം കേരളം മാത്രമായിരിക്കും ഇവിടെ സ്ഥലം കുറവാണെങ്കിലും ഉള്ള ആൾക്കാരുടെ ഒത്തൊരുമയും അവരുടെ ഭാഷാസ്നേഹവും രാജ്യസ്നേഹവും എല്ലാം കേരളത്തെ വേറിട്ടുനിൽക്കുന്നു കേരളത്തിൻ്റെതായ തനതായ സംസാരം അവരുടെ ഭാഷയിൽ തന്നെയുണ്ട് പിന്നെയെന്താ മലയാളം എഴുത്ത് എന്നുള്ളത് എളുപ്പമല്ല നല്ല കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് മലയാളം എഴുതാൻ നല്ല അറിഞ്ഞാൾക്കു തന്നെയേ പറ്റുള്ളൂ പിന്നെ വേറൊരു ഭാഷയിലുള്ള ഒരാൾക്ക് മലയാളം എഴുതലും വായിക്കലും അത്ര എളുപ്പമുള്ള കാര്യമല്ല നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മലയള ഭാഷ ബാക്കിയുള്ള ഭാഷകളെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഏട്ടന്മാരൊക്കെ ഉണ്ട് തിരുപ്പൂർ അവരൊക്കെ മലയാളം പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ മലയാളം സംസാരിക്കും പക്ഷെ എത്ര തന്നെ സംസാരിച്ചാലും ആ ഒരു വ്യത്യാസം അറിയും പക്ഷെ മലയാളികൾ തമിഴ് സംസാരിക്കുമ്പോൾ ആ പ്രശ്നം വരാറേയില്ല എക്സാമ്പിളിന് ഇപ്പോൾ നമ്മുടെ അടുത്ത് വന്ന ഫഹദ് ഫാസിലിൻ്റെ പടത്തിൽ അവൻ തമിഴിൽ പോയിട്ടാണ് അഭിനയിച്ചിരിക്കണത് അവൻ അതിൽ തമിഴ് തമിഴ് സംസാരിക്കണത് ഭയങ്കര ഫ്ലുവെൻറ് ആയിട്ടാണ് നല്ല ഫ്ലുവെൻറ് ആയിട്ട് സംസാരിക്കും പക്ഷെ നമുക്ക് മലയാളികൾക്ക് ഇതുപോലെ സംസാരിക്കണത് എളുപ്പമല്ല തമിഴ് നാട്ടുകാർക്ക് അതുപോലെ മലയാളം സംസാരിക്കണത് എളുപ്പമല്ല പിന്നെ അപ്പൊ അതൊരു എക്സാമ്പിൾ ആണ് ഇങ്ങനെ ബാക്കിയുള്ള ഭാഷകളെ വികാസത്തെ നമ്മൾ സഹായിക്കുന്നുണ്ടെന്നുള്ളത്